എൻ്റെ അടുക്കളയിൽ പലവിധം പാത്രം ഉണ്ട് സ്റ്റീൽ പാത്രം അലൂമിനിയം പാത്രം മൺചട്ടി നോൺ സ്റ്റിക് അതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം മൺചട്ടിയാണ് നോൺ സ്റ്റിക് പാത്രം ഇഷ്ടം കൊണ്ട് എടുത്തതാണ് അതിൻ്റെ ഉപയോഗം കഴിയുമ്പോഴാണ് മനസ്സിലായത് അതിൽ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ ടൗണിൽ പോയാലും ഞാൻ മേടിക്കാറുണ്ട് പാത്രം അതിൽ എനിക്ക് മൺചട്ടിനോട് താല്പര്യം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ നോൺ വെജ് മൺ അതായത് മീൻ കറി ഉണ്ടാക്കലുണ്ട് മീൻ കറിക്ക് നല്ലത് മൺചട്ടി എന്ന് തോന്നിയിട്ടുണ്ട് കറിയിൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ അതേപോലെ അലൂമിനിയം പാത്രം ദോഷം ഉണ്ടാക്കുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അലൂമിനിയം പാത്രത്തിൽ ഇങ്ങനെ പൊടി പൊടി ഇളകിയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് കുറേ സമയം ഉപയോഗിക്കുമ്പോൾ പിന്നെ സ്റ്റീൽ പാത്രം മോശമില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ സ്റ്റീൽ പാത്രത്തിൽ ചോറ് ഉണ്ടാക്കലുണ്ട് കറി ഉണ്ടാക്കലുണ്ട് പിന്നെ മൺചട്ടി ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ ചീൻചട്ടി ചീൻചട്ടി കല്ലുകൊണ്ട് ഉണ്ടാക്കിയത് പിന്നെ കലം പോരുന്ന സാധനം കയ്യിൽ കയ്യിൽ കയ്യിൽ മരത്തിൻ്റെത് ഉണ്ട് പിന്നെ സ്റ്റീലിന്റേത് ഉണ്ട് മരത്തിന്റേതിൽ എല്ലാം ചെയ്യാൻ കഴിയുന്നില്ല സ്റ്റീലിന്റേതിൽ എല്ലാം ചെയ്യാൻ കഴിയുന്നില്ല ദോശ എടുക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെത് വേണം മരത്തിന്റേത് ഒരു രണ്ടു മൂന്ന് എണ്ണം ഉണ്ട് സ്റ്റീലിൻ്റെതും കുറച്ചുണ്ട് ഇതെല്ലാം ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണ് ഗ്ലാസുകൾ സ്റ്റീലിൻ്റെ പ്ലാസ്റ്റിക് പാത്രവും ഉണ്ട് പ്ലാസ്റ്റിക് പാത്രത്തിനോട് എനിക്ക് താല്പര്യമില്ല എന്തെന്ന് പറഞ്ഞാൽ അത് വീണാലും പൊട്ടുന്നുണ്ട് കുറേ സമയം ഉപയോഗിക്കാൻ കഴിയുന്നില്ല പൊട്ട് വീണാൽ പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് മൺചട്ടി മൺചട്ടി ജാഗ്രതയിൽ അത് ഉപയോഗിക്കേണ്ടി വരുന്നു അത് കൈയ്യിൽ നിന്ന് വീണാൽ അത് പൊട്ടി പോകുന്നുണ്ട് ഇങ്ങനെ എൻ്റെ അടുക്കളയിലുള്ള പാത്രത്തിൻ്റെ ലിസ്റ്റ് പറഞ്ഞാൽ മൺചട്ടി സ്റ്റീലിൻ്റെ പാത്രം പ്ലാസ്റ്റിക് പാത്രം പിന്നെ കുപ്പി പാത്രമുണ്ട് കുപ്പീന്റേത് ഗ്ലാസ് ആണ് ഉള്ളത് പിന്നെ ജഗ്ഗ് അത് കുപ്പിന്റേത് ഉള്ളത് അത് ഞാൻ ഈ മേശയിൽ വയ്ക്കലുണ്ട് എപ്പോളും അങ്ങ് താഴെ വീണാൽ അത് പൊട്ടുന്ന രീതിയിലാണ് ഉള്ളത് പിന്നെ ഉള്ളത് നോൺ സ്റ്റിക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ട് കറി വയ്ക്കുന്ന ചട്ടി കറി വയ്ക്കുന്ന ചട്ടിയിൽ ഞാൻ രണ്ട് മൂന്ന് ചട്ടിയുണ്ട് എനിക്ക് അതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കുറേ കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് എന്തോ ഒരു സാധനം ഇളകിയിട്ട് വരുന്നത് കാണാം അപ്പോൾ അത് ഫുഡ് ഐറ്റംസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിനൊണ്ട് പേടിച്ചിട്ട് ഇപ്പം ഞാനത് ദൂരെ ആക്കിയിട്ടുണ്ട് ഉപയോഗിക്കുന്നില്ല ഇപ്പം ഞാൻ എൻ്റെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രം എന്ന് പറഞ്ഞാൽ സ്റ്റീലിന്റെ മൺചട്ടി പിന്നെ സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ ചോറ് വയ്ക്കുന്നത് പിന്നെ മൺചട്ടി ഇതാണ് ഞാൻ മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇഡ്ഡലിയാണ് ഇഡലി പാത്രം ഉണ്ട് ഇഡലി പാത്രം സ്റ്റീലിൻ്റെ പാത്രമാണ് മുൻപ് കീചിൻ്റെ ഉണ്ടായിരുന്ന് കീചിൻ്റെ ചട്ടി ഉപയോഗിക്കുമ്പം അതിൽ പൊടി പൊടി ഇളകുന്നുണ്ടായിന് അയിനൊണ്ട് എനിക്ക് ഇഷ്ടം എൻ്റെ പാത്രമെന്ന് പറഞ്ഞാൽ മൺചട്ടിയും സ്റ്റീലും ആണ് സ്റ്റീൽ ഗ്ലാസ് ചട്ടി സ്റ്റീൽ ബട്ട സ്റ്റീൽ ടിഫിൻ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇതെല്ലാമാണ് എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതിൽ നല്ല വൃത്തിക്ക് അതിനെ കഴുകാൻ പറ്റുന്നുണ്ട് സോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ കൗവാൻ കഴിയുന്നുണ്ട് കൈയിട്ട് നമുക്കത്ത് ഷൈൻ ആകുന്നുണ്ട് ക്ലീൻ ആകുന്നുണ്ട് അതിനോട് തന്നെ എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെത് ഇഷ്ടം പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്ടമല്ലാതെ ഏത് അലുമിനിയം അല്ല സ്റ്റീൽ ഇഷ്ടം പിന്നെ ഡ്രം നല്ലൊരു സ്റ്റീലിൻ്റെ ഡ്രം ഉണ്ട് വലിയ ഡ്രം ആണ് എൻ്റെ അടുക്കളയിൽ ഉള്ളത് ഞാൻ വെള്ളം കൂട്ടാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വയ്ക്കലുണ്ട് സ്റ്റീലിൻ്റെ ഡ്രം പിന്നെ സ്റ്റീൽ ഗ്ലാസ്സ് കഴുകിയിട്ട് വൃത്തിയാകുന്നതാണ് സ്റ്റീൽ എന്നുള്ള ഐറ്റം പിന്നെയുള്ളത് എൻ്റെ അടുക്കളയിൽ സ്പൂണ് നല്ല ഉറപ്പുള്ള സ്റ്റീലിൻ്റെ സ്പൂണുകളുണ്ട് ഇതാണ് എൻ്റെ അടുക്കളയിൽ ഉള്ളത് അത് അല്ലാതെ എൻ്റെ അടുക്കളയിൽ ഉള്ളത് സ്റ്റീലിൻ്റെ തന്നെ വലിയ ഒരു ചട്ടിയാണ് ആ ചട്ടിയിൽ ഞങ്ങൾ എത്രപേർക്കും ചോറ് വയ്ക്കുന്ന രീതിയിലുള്ള ചട്ടി മുൻപ് അലൂമിനിയം ഉണ്ടായിന് അലുമിനിയിൽ നിന്ന് പൊടി വരന്നുണ്ട് പൊടി വരാൻ തുടങ്ങിയപ്പം അതിനെ ഞാൻ ഒഴിവാക്കിയതാണ് പിന്നെ ചീഞ്ചട്ടി ചീഞ്ചട്ടിയിൽ സ്റ്റീലിൽ പലവിധം ഉണ്ട് കുറച്ച് നല്ല സ്റ്റീൽ അല്ലാത്തതിൽ അടിക്ക് പിടിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ചട്ടിയുണ്ട് അടിക്ക് പിടിച്ചിട്ട് അതിനെ ഞാൻ കളഞ്ഞിട്ടുണ്ട് അടിക്ക് പിടിക്കുന്നു അതായത് ഇങ്ങനെ അടിയിൽ ഒരു കറുത്ത ഇത് വരുന്നു പെട്ടെന്ന് തീ കുറച്ച് കൂടിയാൽ എന്നിട്ടതിനെ ഞാൻ അതിനെ ചാടീന് ഇപ്പം ഉപയോഗിക്കുന്നത് കട്ടിയുള്ള സ്റ്റീൽ കട്ടിയുള്ള സ്റ്റീൽ എത്ര തീ കൊണ്ടാലും അടിക്ക് പിടിക്കുന്നില്ല ചോറ് നല്ലതാവുന്നുണ്ട് കറി നല്ലതാവുന്നുണ്ട് അത് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ചട്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ജാഗൃതമാണ് വീഴണ വീണാൽ പോയി വീണെങ്കിൽ അത് പൊട്ടി പോവുന്നുണ്ട് എൻ്റെ കൈയിൽ നിന്ന് ഒന്ന് വീണിട്ട് പൊട്ടി പോയിട്ടുണ്ട് ഇപ്പം എനിക്ക് മൂന്ന് മണ്ണിൻ്റെ ചട്ടിയുണ്ട് അതിൽ ഞാൻ കൂടുതലും കറി ഉണ്ടാക്കുന്നു പിന്നെ വറവ് ഉണ്ടാക്കുന്നു ഒന്നിൽ ഞാൻ വറവ് ഉണ്ടാക്കുന്നു പച്ചക്കറിയിൻ്റെ വറവ് ഉണ്ടാക്കും പിന്നെ മീൻ കറി ഉണ്ടാക്കും നോൺ വെജ് ഉണ്ടാക്കുന്നതാണ് ഞാൻ മൺച്ചട്ടിയിൽ

ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് പിഞ്ഞാണം ഉണ്ടായിനി ഈ പിഞ്ഞാണം എല്ലാം പൊട്ടിപ്പോയിനി ചൂട് ഇട്ടെങ്കിലൊന്ന് എന്താണ് പൊള്ളിയ കണക്കായിട്ട് അതീന്നിളകിയിട്ട് വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൽ പിന്നെ ഒരിക്കൽത്തേന് പളുങ്കിൽ തിന്നാം ഗ്ലാസ്സിൻ്റെതാണ് നല്ലത് ഗ്ലാസ്സിൻ്റെ പ്ലേറ്റിൽ ചോറ് വിളമ്പിയാൽ ഒന്നും ആകുന്നില്ല അപ്പോൾ ഗ്ലാസ്സും മൺചട്ടിയും സ്റ്റീൽ ആയിരിക്കും നല്ലത് എൻ്റെ അടുക്കളയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല വേറെ ആരെങ്കിലും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെലക്ട് ആക്കുന്നുണ്ടെങ്കിൽ അവർ ഗ്ലാസിൻ്റെതും മൺചട്ടിയും സ്റ്റീലും ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ അവർക്ക് പാചകം ചെയ്യാമെന്ന് തോന്നുന്നു പാചകം ചെയ്യാം വിളമ്പാം എല്ലാം ചെയ്യാം പിന്നെ കഞ്ഞിക്കലം ഒന്ന് കീച്ചിൻ്റത് ഉണ്ട് കഞ്ഞിക്കലം പിന്നെ ഞാൻ അത്ര ഉപയോഗിക്കാത്തത് കൊണ്ട് കീച്ച് അലുമിനിയം അലൂമിനിയം ഉപയോഗിക്കുന്നുണ്ട് കഞ്ഞിക്കലം മാത്രമാണ് എൻ്റെ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് കീച്ച് അലൂമിനിയം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും ഞാൻ അലുമിനിയം ഉപയോഗിക്കുന്നില്ല അലുമിനിയത്തിൽ പണ്ട് ഉപയോഗിക്കുമ്പോൾ തുരുമ്പ് ഇങ്ങനെ പൊടി പൊടി ഇളകിയിട്ട് വന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ് അതിന് മുതൽ ഞാൻ അലൂമിനിയം ഉപയോഗിക്കുന്നുമില്ല എനിക്ക് ഈ എല്ലാവരോടും പറയാൻ ഉള്ളത് ഒന്ന് മാത്രം നിങ്ങൾ എന്ത് ഉപയോഗിക്കണം അലുമിനിയം ഉപയോഗിക്കാതെ സ്റ്റീലും മൺചട്ടിയും ഉപയോഗിക്കണം ഗ്ലാസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഗ്ലാസ് ഗ്ലാസ്സിൽ ഞങ്ങളിപ്പം വെള്ളം കൂട്ടി വയ്ക്കുന്നില്ലേ അത് വേറേതും പാത്രത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഗ്ലാസ്സിൽ വെച്ചാൽ മൺ ഗ്ലാസ്സ് മീൻസ് കുപ്പി ഗ്ലാസ്സ് ആണ് ഞാൻ പറഞ്ഞത് കുപ്പിയിലെ വലിയ ജഗ്ഗ് പോലത്തേതിൽ വെള്ളം കൂട്ടി വെച്ചാൽ ഞങ്ങള ആരോഗ്യത്തിന്ന് നല്ലതാണ് മൺചട്ടിയിൽ നല്ല ചോറ് ഉണ്ടാക്കുന്നുണ്ട് ചോറുണ്ടാക്കുമ്പം വാർക്കാൻ കഷ്ടമാവും എന്നാലും ചോറുണ്ടാക്കുന്നത് നല്ലതാണ് മൺചട്ടിയിലും ചോറുണ്ടാക്കുന്നത് മൺചട്ടിയിൽ ചോറുണ്ടാക്കിയാൽ നല്ലത് വെള്ളം കൂട്ടി വെച്ചാലും നല്ലത് തണുത്ത വെള്ളമായിരിക്കും ചൂട് വെള്ളം അതിൽ ഇട്ടിട്ട് വെച്ചാലും തണുപ്പായിരിക്കും അപ്പോൾ എൻ്റെ പാത്രമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കളയിലെ പാത്രമെന്ന് പറഞ്ഞാൽ മൺപാത്രം മൺപാത്രത്തിൽ ചോറിൻ്റെ ചട്ടി പിന്നെ കറിയിൻ്റെ പാത്രം പിന്നെ മണ്ണിൻ്റെ കയ്യിലുണ്ട് എൻ്റെ വീട്ടിൽ പിന്നെ കീചിൻ്റെ കഞ്ഞിക്കലം പിന്നെ സ്റ്റീലിൻ്റെ ചോറിൻ്റെ പാത്രം പിന്നെ വറവ് ഉണ്ടാക്കുന്നില്ലേ അതുണ്ട് പാത്രം പിന്നുള്ളത് എൻ്റെൽ ഗ്ലാസ്സ് ഗ്ലാസ്സ് എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം കൂട്ടി വെച്ചിട്ട് ചൂട് വെള്ളം കുറച്ച് തണുത്തിട്ട് കൂട്ടി വയ്ക്കുന്നത്

പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റിൽ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പം അത് പൊള്ളി കണക്കായിട്ടുണ്ടാണ് അത് കുറേ സമയം ഉപയോഗിക്കാൻ കഴിയുന്നില്ല അതിൽ എന്തൊക്കെയോ ഉണ്ട് അത് ഞങ്ങളുടെ ശരീരത്തിലേക്ക് എത്തും വയറ്റിലൂടെ ഞങ്ങള ഫുഡിലൂടെ അറിഞ്ഞു കൊണ്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാണ്ട് പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുക എന്നിട്ട് മൺചട്ടി മേടിക്കുക മൺചട്ടി ഇല്ലെങ്കിൽ നല്ല സ്റ്റീലിൻ്റേത് ഉപയോഗി സ്റ്റീൽ മേണിക്കുമ്പോഴൊക്കെ നോക്കിയിട്ട് നല്ല സ്റ്റീൽ എടുക്കുക ഉറപ്പുള്ള സ്റ്റീൽ എടുക്കുക കുക്കർ പോലും ഞങ്ങൾ സ്റ്റീലിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും ഇപ്പം അലൂമിനിയം കുക്കർ മേടിക്കുന്നു അതിൽ പൊടിപൊടി ഇളകുന്നു ആ പൊടിപൊടി ഫുഡില് പോയിട്ട് ഞങ്ങള ശരീരത്തിൽ പോവുന്നു വേണോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിടാണ്ട് എല്ലാവരും സ്റ്റീലിൻ്റെതും മണ്ണിൻ്റെതും ഉപയോഗിക്കുക